ഹലോ പാസ്സ്പോർട്ട് ഓഫീസല്ലേ ഞാൻ വിളിച്ചത് എൻ്റെ പാസ്സ്പോർട്ടിന്റെ കാര്യം അറിയാൻവേണ്ടി ആയിരുന്നു അത് തയ്യാറായോ എന്നറിയാൻ വേണ്ടിയായിരുന്നു കാരണം ഞാനെന്റെ കൂട്ടുകാർക്കൊപ്പം ഒരു ഒരു യാത്ര പോകാനായിട്ടാഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ നേരെ പോകുന്നത് തായ്ലൻറ്റിലോട്ടായിരുന്നു അപ്പോൾ പാസ്പോർട്ട് വേണമല്ലോ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആകാംഷയായിട്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ യാത്ര എൻ്റെ കൂട്ടുകാർക്കൊപ്പമുള്ള ആദ്യത്തെ യാത്രയാണ് അപ്പോൾ പാസ്പോർട്ട് പെട്ടെന്ന് ശരിയാക്കി കിട്ടിയാൽ പെട്ടെന്ന് പോകാമല്ലോ എന്ന് തീരുമാനിച്ചായിരുന്നു ആ ഇല്ലില്ല ഈ അടുത്ത് തന്നെ പോവണം അടുത്തുതന്നെ പോവണം അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടുമോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചുള്ളൊരു യാത്രയായിരുന്നു കൂട്ടുകാർക്കൊപ്പമുള്ള ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു അപ്പോൾ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിരുന്നെങ്കിൽ തയ്യാറാക്കി കിട്ടിയിരുന്നെങ്കിൽ പോകാമായിരുന്നു അതൊന്നു വേഗം അതിന്റെ കറക്ട് അതിന്റെ ശരിയായിട്ടുള്ള സമയവും കാര്യങ്ങളുമൊക്കെ എനിക്ക് എന്നെ ഒന്ന് അറിയിക്കണേ മറക്കല്ലേ ആ ശരി ശരി